നമ്മളിപ്പോൾ എന്താണെങ്കിലും ഒരു ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇനത്തിൽ ഏതിലെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്മാറണം സ്വമേധയാ പിന്മാറണം കാരണം ഗെയിമിൽ കളി കളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം ഇനത്തിൽ ഇറങ്ങി പറഞ്ഞാൽ അന്ന് എന്തായാലും ഒന്നുല്ലെങ്കിൽ തോക്കും അല്ലെങ്കിൽ ജയിക്കും അതുകൊണ്ടുതന്നെ നമ്മൾ ഇപ്പോൾ തോറ്റു പറഞ്ഞാലും വിഷമിക്കാൻ ഒന്നുമില്ല നമ്മളിപ്പോൾ ആ തോൽവി നമ്മളെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ജയിക്കണം മുന്നോട്ട് വരണം അന്ന് തോറ്റവിടുന്ന് തുടങ്ങണം തുടങ്ങി നമുക്ക് ജയിക്കണം ആ തോൽപ്പിച്ച ആളേയും മറികടന്ന് വിജയത്തിലെത്തണം എന്നുള്ള ഒരു നമ്മുടെ മനസ്സിനെ അത് പിടിച്ച് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അതിലേയ്ക്ക് വീണ്ടും കടന്നു വരും ആ ഇപ്പോൾ ഗെയിം കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സിൽ ഏതെങ്കിലും ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അന്ന് പരാജയപ്പെട്ടു ടീം പരാജയപ്പെട്ടു അതും ഇപ്പോൾ ഞാനും കളിക്കുകയാണെങ്കിൽ എൻ്റെ വീക്ക് മോശമായ ഗെയിമിലാണ് ടീം പരാജയപ്പെട്ട് എനിക്ക് ഗോളടിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ട് ഞാൻ അത് പാഴാക്കി അപ്പോൾ ഞാൻ അത് എനിക്ക് ഇങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കും അത് ഞാൻ കാരണം എല്ലാവരും സഫർ ചെയ്തു നമ്മൾ പിന്നെയും അതിനു വേണ്ടി പരിശ്രമിക്കും ഹാർഡ് വർക്ക് ചെയ്യും പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അതിൽ എത്താൻ പറ്റും എന്തായാലും എപ്പോഴും തോറ്റു കൊണ്ടിരിക്കില്ല ഒരു പ്രാവശ്യം ജയിക്കും അപ്പോൾ നമുക്കത് തോറ്റാലും നമ്മൾ മുന്നിലെത്തും എന്നുള്ള ഒരു ഇതുണ്ടാകും നമ്മൾ ജയിക്കും ഇന്നല്ലെങ്കിൽ നാളെ